ഇപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ പല രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് നമ്മള് കോഴിക്കോട് ജില്ലയില് പലതരം അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നാലമ്പലം അങ്ങനത്തെ പല രീതിയിലുള്ള അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയുണ്ട് കോഴിക്കോട് ജില്ലയില് അപ്പം നല്ല രീതിയിലുള്ള ഫെസ്റ്റിവളും ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെയാണ് കോഴിക്കോട് ജില്ലയില് ഇള്ളതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എന്നു പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പോൾ വിഷു ഉത്സവം അങ്ങനത്തെ പ പല രീതിയിൽ ഇപ്പോൾ മതത്തിൻ്റെ മതപരമായിട്ടും പലതരം ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട് ഇപ്പോൾ ഓരോ മതത്തിൽപ്പെട്ട ആൾക്കാരും ഈ ബീച്ച് ഫെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പലരീതിയിലും നടക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അന്തർദേശീയ ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്താന്ന് വച്ചു കഴിഞ്ഞാല് അത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ദേശീയതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിലാണ് കൂടുതലായിട്ട് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ എന്നല്ല നമ്മുടെ സംസ്ഥാനത്ത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കോഴിക്കോട് ജില്ലയില് അത് പ്രാ പ്രാധാന്യമായിട്ട് ഉള്ളൊരു ഉത്സവം കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ബീച്ച് ഫെസ്റ്റ് ബീച്ചില് പിന്നെ ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ പല രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് നടക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ വിഷു ആഘോഷിക്കുന്നുണ്ട് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മലയാളികൾ പൊതുവെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്ത് പറഞ്ഞാല് പല രീതിയിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്